പ്രാദേശികപത്രമായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് വായിക്കുന്നത് ദീപിക പേപ്പർ ആണ് ആ പേപ്പറിൽ ദീപിക പേപ്പറ്കളിൽ സഭയുടെ കാര്യങ്ങൾ രാഷ്ട്രീയകാര്യങ്ങൾ സാമൂഹിക സാമൂഹിക ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ പേപ്പറിൽനിന്നും വായിച്ച് മനസിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ സ്പോർട്സ് കാര്യങ്ങളായിട്ടും ഒക്കെ ദീപിക പേപ്പറില് വളരെ നല്ല കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഈ ഓരോ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും സ്കോളർഷിപ്പുകളായിട്ടുള്ള കാര്യങ്ങളും ന്യുനപക്ഷ സ്കോളർഷിപ്പ്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദീപികയിലാണ് വളരെ വ്യക്തപരമായി വ്യക്തമായിട്ട് വരുന്ന താണ് മറ്റുള്ള പ്യോപ്പറുകളെക്കാളും മനോരമ മാതൃഭൂമി അങ്ങനെ വേറെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ദീപികയിൽ നമ്മളുടെ സഭയുടെ കാര്യങ്ങൾ നമ്മളുടെ ആത്മീയകാര്യങ്ങളിൽ നമ്മുടെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വം വഹിക്കുന്നവർ നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ടും പറയാനും ഒക്കെ നമ്മുടെ ദീപിക പേപ്പർ ആണ് ഏറ്റവും മുന്നെ ആയിട്ട് നിൽക്കുന്നത് എന്നാണ് അനുഭവപ്പെടുന്നത് അതുപോലെ ഇങ്ങനെ വർഗീയതയാലും രാഷ്ട്രീയപരമായിട്ട് ആണെങ്കിലും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഓരോ കണ്ടെത്തലുകൾ കണ്ടെത്തുന്നതിനും ഉദാഹരണം നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾക്കൊക്കെയാണെങ്കിലും പിന്നെ വിദ്യഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സഭയുടെ തലവന്മാർ മേലധ്യക്ഷന്മാർ അവർ ടെ പിന്നെ പ്രവർത്തനങ്ങളും അവർ നമുക്ക് വേണ്ടി പിന്നെ പൊതുസമൂഹത്ത് നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും തരുന്നതിനും പിന്നെ എല്ലാം ഒരു മാധ്യമത്തിലൂടെ അറിയിക്കണം എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ദീപിക പേപ്പറ് വളരെയധികം മ് ഉപകാരപ്രദമായിരിക്കുന്നു പിന്നെ ഒരു സ്പോർട്സ് കാര്യത്തിലൊക്കെ ആണെങ്കിലും പിന്നെ കളികളിലൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപെട്ടത് കാര്യങ്ങൾ ഒക്കെ പിന്നെ ഈ ദീപിക യില് ഒന്ന് പിള്ളേർടെ പടങ്ങളൊക്കെ കാണുന്നെ കണ്ടുരസിക്കുന്നെനും അതൊക്കെ കുട്ടികൾക്കു വളരെ ഇഷ്ടമാണ് ദീപിക പേപ്പറിലാണ് പിള്ളേരുടെ പിന്നെ ഇങ്ങനെ സ്പോർട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള വരുന്ന വിവരങ്ങൾ അറിയുന്നതിനൊക്കെ കൂടുതലും ദീപികയാ ഉപകാരപ്രദമാകുന്നത് എ പിന്നെ എന്ത് ഓരോ ആ അന്നന്നത്തെ വിവരങ്ങൾ നമ്മൾ ഒരു ന്യൂസ്പേപ്പർലൂടെ അറിയുമ്പോൾ അത് ഒരു വ്യക്തിയല്ല കോടികണക്കിന് ജനങ്ങളിലോട്ടാണ് ഓരോ അറിവും ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് എല്ലായിപ്പോഴും എല്ലാവരും മൊബൈലിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലോ റ്റി വി യിലോ ഒന്നും എപ്പോഴും കണ്ടെന്നിരിക്കില്ല നിസ്സാരം നമ്മൾ ഒരു പേപ്പറ് വായന അത് ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ദീപിക നല്ല ഒരു സാക്ഷ്യമായിട്ട് അ കരുതുന്നുണ്ട് ഇത് ഇവിടെത്തന്നെയല്ലേ ഞെക്കേണ്ടത് ഇത് കേൾക്കാനായിട്ട് അല്ല അല്ല ഇത് ഓഫ് ആക്കുന്നത് എങ്ങനെയാ ഓഫ് ആക്കുന്നത് ഇതിൽ തന്നെയല്ലേ